ഹലോ ഷാജിയല്ലേ ഈ നമ്മുടെ കുറച്ച് പ്ലംബിങ്ങ് ചെയ്യാനുണ്ടായിരുന്നു കുറെ പൈപ്പൊക്കെ മാറാനുണ്ട് അത് എപ്പോഴത്തേക്ക് വരാന് പറ്റും ആ നമുക്കതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ അതെ അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ അതിൻ്റെ മേടിക്കേണ്ട സാധനങ്ങളുടെയും അതുപോലെതന്നെ നമ്മുടെ റൈറ്റ് നമുക്ക് ചെയ്യാന് പറ്റുന്നത് എത്ര രൂപയാകും അത് എത്ര രൂപ മുടക്കാവും എന്നൊക്കെ എന്താണ് അറിയാമായിരുന്നു വന്നായിരുന്നുവെങ്കില് അതെ നമുക്ക് മേടിക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ളതുതന്നെ മേടിക്കണം നല്ല കമ്പനിയുടെ വേണം നമുക്കെന്നുമെന്നും മാറാന് പറ്റുകയില്ലല്ലോ ആ ആ നമ്മള് ഇത് നിലവില് ചെയ്തിരുന്നത് അത്ര മെച്ചമുള്ള സാധനമല്ലായിരുന്നു അപ്പോള് നല്ല സാധനം മേടിച്ച് നമുക്ക് ചെയ്യണം ആ ആ ഇത് ചെയ്തിട്ട് കുറേ വർഷങ്ങളായതാണ് പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായതാണ്

അപ്പോള് ഒന്ന് വന്നുനോക്കിയിട്ട് നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക അതെന്തോരം വേണം അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്നെടുത്തിട്ട് മ്മ് മ്മ് നോക്ക് അടുത്തുതന്നെയാണ് അടുത്തുതന്നെയാണ് ആ അത് കുറച്ച് മാറേണ്ടിവരുമായിരിക്കും അത് നല്ല കമ്പനി ഏതാണ് നമ്മളിപ്പോള് എടുക്കാന് പോകുന്നത് ഏത് കമ്പനിയുടേതാണ് പൈപ്പൊക്കെ ആ ആ നമുക്ക് നിലവിൽ നേരത്തെ പറ്റിയതുപോലെയാകരുത് എന്നോർത്താണ് അങ്ങനെ ചോദിക്കുന്നത് അതെ അത് നമുക്ക് ഉദ്ദേശം ഏകദേശം എത്ര രൂപയാകുമെന്നൊരു ഇത് അറിയാൻ മാർഗ്ഗമില്ലല്ലേ ഒരു പൈപ്പിനൊക്കെ എന്ത് വിലവരും നല്ല കമ്പനിയുടേത് മേടിച്ചാല് ആ അതെ അ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ആ അപ്പോള് എപ്പോഴത്തേക്ക് ഇറങ്ങാന് പറ്റും ആ ഉവ്വ് അതാണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ